കരയിൽ നിന്നും അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് നീന്തുമ്പോൾ നമ്മൾ തീർച്ചയായും സുരക്ഷിതരായിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ വഴി എതൊക്കെയാണെന്നാണ് ഞാനിപ്പോള് പറയുന്നത് ശരിക്കും നമ്മള് കായലിൽ നിന്നും വളരെ അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മള് ആദ്യം തന്നെ നമുക്ക് പാൻറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള തീർച്ചയായിട്ടും ഒരു നിക്കറോ ഒരു ബനിയനൊക്കെ ഇടാന്നേളെളയുള്ളൂ ഇത് ഒന്നുമില്ലാതെ നീന്തുകയാണു നമുക്കേറ്റവും സെക്യൂർ അതുപോലെതന്നെ കൂടുതൽ ദൂരം നമുക്ക് നീന്താൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊഫഷണൽ ആളായിരിക്കണമല്ലോ അല്ലാതെ കൂടുതൽ നീന്താൻ തീർച്ചയായിട്ടും നമ്മളതിന് മുതിരുകേല അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് വേണം നമ്മൾ തീരുമാനിക്കാൻ വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങോട്ടാണോ ആ ദിശയിലേക്കോ ആർക്കാണ് നീന്താൻ പറ്റുകയുള്ളൂ നിങ്ങൾ നീന്ത് നീന്തുകയാണെങ്കിൽ നമുക്ക് തീരെ സ്ട്രെയിനോ സ്ട്രെയിനില്ലായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഈ മലർന്ന് കിടക്കുന്നൊരു പ്രക്രിയ എല്ലാവർക്കും തന്നെ നീന്തൽസ് ഈ സ്വിമ്മേഴ്സിനെല്ലാം അറിയാൻ പറ്റും അതായത് മലർന്നുകിടന്ന് കഴിഞ്ഞ് നമുക്ക് ഒരു സ്ട്രെയിനും ഉണ്ടാകത്തില്ല നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുകയും ചെയ്യും പിന്നെ നമ്മള് തീർച്ചയായിട്ടും എങ്ങോട്ട് വെള്ളം പോകണോ ആ രീതി മാത്രമേ നീന്താവുള്ളൂ നമ്മള് സ്ട്രെയിൻ എടുക്കാതെ അല്ലെങ്കില് നമ്മൾ ഒരിക്കലും വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു തിരിഞ്ഞ് തീർച്ചയായിട്ടും ഒരിക്കലും ചെയ്യാൻ നമുക്ക് സാധിക്കത്തൂല്ല സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെയിനും ഉണ്ടാകും ആ സ്ട്രെയിൻ ഉണ്ടാകുന്ന ഫലമായി നമുക്കവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ വളരെയേറെ ചാൻസസ് ആണ് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തീർച്ചയായിട്ടും ആ ഒഴുക്കെങ്ങോട്ടാണോ ആ രീതിയിലോട്ട് മുന്നോട്ടുപോവാം എന്നു മാത്രമാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഈ വഴുവഴുപ്പുള്ള പ്രതലങ്ങൾ തീർച്ചയായിട്ടും നമ്മള് നീന്തുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുമ്പോള് തീർച്ചയായിട്ടും അതേറ്റവും വലിയ കെയറായിരിക്കണം കാരണം നമ്മള് ഇൻ കേസ് നീന്തുന്നതിൻ്റെ ഭാഗമായി ഒരു വഴു വഴുപ്പുള്ള പാറയിൽ കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തെന്നി വീഴും സ്ലിപ്പ് ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ചാൻസസ് കൂടുതലാണ് അപ്പോള് അതിനാനുള്ള മാർഗ്ഗം നമ്മൾ കണ്ടെത്തിയിട്ടും മാത്രമേ യോ അങ്ങനെ വളരെ കറക്റ്റായിട്ട് മാത്രമേ നമ്മള് അതിന് മുതിരാൻ അങ്ങനെ നമ്മൾ ക്ലൈമ്പെയ്യാനോ തീർച്ചയായിട്ടും അത്ര പ്രൊട്ടക്ടെയ്ത് മാത്രമേ ആ രീതിലൂടെ മുന്നോട്ടുപോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മള് ചെയ്യേണ്ടത് നമ്മൾ വളരെ സ് സ്ട്രെയിനില്ലാതെകണ്ട് വളരെ നോർമലായി ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മള് ഏത് ഇങ്ങനെ നീന്തുന്ന ഒരാളെന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും അവന് മാനസികമായി തയ്യാറെടുക്കണം അല്ലെങ്കില് പെട്ടെന്ന് ഇന്നലെ നീന്തൽ നീന്തല് പഠിച്ചിട്ട് ഇന്ന് ഇറങ്ങുകയെന്നു പറഞ്ഞാൽ അതൊരിക്കലും സാധിക്കത്തുമില്ല അത് അപകടങ്ങൾ വിളിച്ചുവരുത്തുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും നീന്തുന്ന ആള് നമ്മള് തീർച്ചയായിട്ടും മുൻകൂട്ടിത്തന്നെ നമ്മൾ ട്രെയിനിങ് എടുത്തതിനുശേഷം മാത്രമേ യോ ഇത്രയും ദൂരെയുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് നമ്മള് തീർച്ചയായിട്ടും നീന്താൻ സാധിക്കുകയുള്ളൂ ശക്തമായ ഒഴുക്ക് പോലുള്ള ചില തടസ്സങ്ങളെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് കണ്ടെത്തി ആ ഒഴുക്കിനെ എങ്ങനെ നിയന്ത്രിക്കാം നമ്മുടെ ബോഡി ചലനം കൊണ്ട് ആ ശക്തനായ ഒഴുക്കിനെ എങ്ങനെ പ്രതികരിക്കണം നമ്മള്ക്ക് ആദ്യം തന്നെ എങ്ങനെ ഇത് മനസ്സിലാക്കാന് പറ്റും ശക്തമായ ഒഴുക്കുള്ള നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുമ്പോള് ശക്തമായ ഒഴുക്കോ എങ്ങനെ ഉണ്ടായി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെങ്ങനെ അറിയും ഐഡൻറ്റിഫൈ ചെയ്യും എന്നതാണ് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഒരു പാഠം ഇത്രയും മുൻകരുതലുകളൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് സേഫായിട്ട് നമുക്ക് ആ ഒരു നമ്മളുദ്ദേശിക്കുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും ചെ ചെല്ലാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നമ്മൾ തീർച്ചയായിട്ടും സ്വിമ്മിങ്ങിൻ്റെ കാര്യമെന്നു പറഞ്ഞാല് തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസാകാതെ ഒരിക്കലും നമ്മള് ഒരു ദൂരെയുള്ള ഒരു യാത്രയിൽ മുതിരു മുതിര് അതായത് രംഗത്ത് ഇറങ്ങരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കേ